ഞാന് ഓൺലൈനിൽ വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഞാന് ഹെയർ ഓയിൽ ആയിരുന്നു അതിനെക്കുറിച്ച് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ശരിക്കും എനിക്ക് അത്യാവശ്യം ഞാൻ നല്ല റേറ്റ് കൊടുത്തു വാങ്ങിച്ച പക്ഷേ എനിക്ക് തൊട്ടു ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം കാരണം അതൊരു എന്താ പറയുക നമ്മുടെ സാധാരണ ഹെയർ ഓയിൽ പോലെ ആയിരുന്നില്ല ഒരുമാതിരി എന്താ പറയുക ഒട്ടിപ്പിടിക്കുന്ന മാതിരി ഉള്ളതായിരുന്നു നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ സമയത്ത് ഹെയർ പിന്നെ മറ്റും പൊട്ടിപ്പോവാനുള്ള ഹെയർ ഒരു പ്രാവശ്യം ചെയ്ത സമയത്ത് അത്ര എന്താ പറയുക ഹെയർ പൊട്ടി പോവുകയും ഒരുമാതിരി അം അൺ കംഫർട്ട് ആയിരുന്നു നമ്മുടെ ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞാൽ പോലും ആ ഒരു ഹെയർ നമ്മുടെ ആ ഒരു ഓയിൽ തലയിൽ അങ്ങ് നിന്നിട്ട് എന്താ പറയുക ഇറ്റ്സ് നോട്ട് ഗുഡ് എന്ന് ഞാൻ പറയാം കാരണം ഞാൻ നല്ലൊരു റേറ്റിനാണ് വാങ്ങിച്ചത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച റിവ്യൂല് കണ്ടപോലെ ആയിരുന്നില്ല ഒരുപാട് എന്താ പറയുക മാറ്റമുണ്ടായിരുന്നു കാണുമ്പോഴും പക്ഷേ ഞാൻ യൂസ് കുഴപ്പമുണ്ടായിരുന്ന നല്ല രീതിയായിരിക്കുന്ന യൂസില് നല്ല രീതി ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ യൂസ് ചെയ്തത് പക്ഷേ നല്ല രീതിയല്ല ക്വാളിറ്റിയും ശരിയായിരുന്നില്ല നേരെ പാക്ക്ഡ് ആയിരുന്നില്ല